എൻ്റെ സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേബിൾ ഫാൻ ആണ് അതിനെ കുറിച്ച് പറയുവാനുള്ള എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിയ സമയത്തൊക്കെ നല്ല അടിപൊളി ആയിട്ട് വർക്ക് ചെയ്തു കൊണ്ടിരുന്ന ഫാൻ ആയിരുന്നു അതിൻ്റെ മൂമെൻ്റേഷനും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരുന്നു പിന്നേയെന്ന് പറയുകയാണെങ്കിൽ അത് വാങ്ങണ സമയത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂമെന്റേഷൻ അക്കെ കറക്റ്റ് ലെഫ്റ് ആ സൈ ആയിരുന്നു റ്റേണിങ് പോയിൻറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ടു നടക്കുമായിരുന്നു പിന്നേയെന്ന് പറയുമ്പം എന്താ പറയുക നല്ല സ്പീഡ് ആയിരുന്നു ഫാനിന് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നത് വാങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേയ്ക്കും എന്താ വെച്ചാൽ അതിൻ്റെ മൂമെന്റേഷൻ ഒക്കെ നിന്നു പോയി അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാണ്ട് അങ്ങനെ നിന്ന് പോയിയെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ ഫാനിൻ്റെ സ്പീഡ് അങ്ങനെ തന്നെ ഉണ്ട് കുഴപ്പമില്ല പഷെ എന്ന് വെച്ചാൽ അതിടയ്ക്ക് നമ്മളത് സ്വിച്ച് ഇട്ട് ഓൺ ചെയ്യുമ്പോഴത്തേനും ആ സ്റ്റാട്ട് ചെയ്യുമ്പം തന്നെ ആ ഫാൻ മൂ ആകുന്നില്ല അത് ഓടുന്നില്ല അതങ്ങനെ പറ്റി കേടായി പോയതാണ് തോന്നുന്നത് അപ്പം അതാണ് ഇപ്പം രണ്ടാമതു എൻ്റെ നെഗേറ്റീവ് എക്സ്പീരിയൻസ് പറയാനുള്ളത് പിന്നെ വാങ്ങിയ സമയതൊക്കെ നല്ല അടിപൊളി ഫാൻ ആയിരുന്നു പിന്നെ വാങ്ങി കുറേ കാലം കഴിഞ്ഞപ്പോഴേയ്ക്കും അതിൻ്റെ മൂമൻ്റേഷൻ കാര്യങ്ങളൊക്കെ നിന്ന് പോയി ഇപ്പം തന്നെ അതാണെനിക്കിപ്പം പറയാനുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഫാനിനെ കുറിച്ച് പിന്നേയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താ അതിൻ്റെ ബില്ല് എന്താ പറയുക അതിൻ്റെ ആക്കുറസിയും പിന്നെ സ്പീഡ് അത് പോലെ തന്നെ മൂമന്റേഷൻ എല്ലാം അതുപോലെ തന്നെ നിന്ന് പോയിയെന്നുള്ളതാണ്